ഹലോ ഹാപ്പി അവേഴ്സ് ടൂർ ആൻഡ് ട്രാവൽസല്ലേ ആ ഞാൻ വൺ മന്ത് മുന്നേ ഇവിടുന്നൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് ആ ഞങ്ങൾ ഫാമിലി ആയിട്ട് കന്യാകുമാരി പിന്നെ മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടി പോകാനായിട്ടായിരുന്നു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ യാത്ര വളരെയധികം നല്ലതായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഡ്രൈവർ അദ്ദേഹം കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു എല്ലാ സ്ഥലങ്ങളും കൃത്യമായി സുരക്ഷിതമായി ഞങ്ങളെ എത്തിച്ചു എടുത്തുപറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ടൈം മാനേജ്മെൻ്റായിരുന്നു കൃത്യമായിട്ട് ഞങ്ങളെ എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെക്കൊണ്ടാണ് വീണ്ടും നിങ്ങളുടെ ഏജൻസിയിലേക്ക് വിളിച്ചത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങാൻ കഴിഞ്ഞില്ല വിട്ടുപോയി ആ ഇപ്പോൾ ഞാൻ വിളിച്ചത് ഞങ്ങളടുത്ത വീക്ക് ഫാമിലിയായിട്ട് തമിഴ്നാട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അന്ന് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ആളെത്തന്നെ വീണ്ടും അയക്കാനായിട്ട് ഞങ്ങളാഗ്രഹിക്കുന്നു സാധ്യമാണോ അത് അന്നത്തെ ബുക്കിങ് ഡീറ്റെയിൽസ് അയച്ചുതരാം നിങ്ങൾ അവിടുത്തെ ഡേറ്റ നോക്കിയിട്ട് സെയിം ഡ്രൈവറെ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി ശരി